ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയും മലയാളം തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ നമുക്ക് അത് ഒന്ന് നമ്മുടെ പ്രാദേശിക ഭാഷയാണ് പക്ഷേ ഹിന്ദി പറയണത് നമുക്ക് ഒരിക്കലും ഒരു പ്രാദേശിക ഭാഷാ രീതിയില് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഭാഷയല്ല അത് കുറേ സംസ്ഥാനങ്ങളിലും മൊത്തമായിട്ട് പരന്നു കിടക്കുന്ന ആൾക്കാര് കോമൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നു മാത്രമാണ് ഇപ്പം ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാര്ന്ന് പറയുമ്പോൾ മറാഠികൾ സംസാരിക്കും അതായത് മഹാരാഷ്ട്രക്കാര് സംസാരിക്കും ബീഹാറികൾ സംസാരിക്കും നോർത്തിലെ മിക്ക ആൾക്കാരും ഹിന്ദി സംസാരിക്കും ഇപ്പം അപ്പം നമുക്കതൊരു സംസ്ഥാനത്തിൻ്റെ ഭാഷ നമുക്കതിനെ കാണാൻ പറ്റില്ല നേരെമറിച്ച് നമ്മുടെ മലയാള ഭാഷാന്ന് പറയണത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ എന്താ പറയുക ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി കൊടുക്കുമ്പോൾ അത് വളരെ അനുയോജ്യമായ ഒരു കാര്യമാണ് നമ്മുടെ മലയാളികള് അതായത് നമ്മുടെ മലയാളത്തിൻ്റെ തനിമ സംസ്കാരം നമ്മുടെ പാരമ്പര്യം എല്ലാമീ മലയാള ഭാഷയിലൂടെയാണ് നമ്മള് പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് അതേ മറിച്ചിട്ട് നമ്മുടെ ഹിന്ദി ഭാഷ നോക്കാണെന്ന് പറയുമ്പോൾ രാജ്യത്തിന് മൊത്തത്തിലുള്ള ഒരു ഭാഷ അത്രേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ വേറെ അതിന് എന്താ പറയുക എല്ലാവർക്കും കോമൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഷ അതിൽ കൂടുതൽ നമുക്ക് ഹിന്ദീനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല